മലയാളി മലയാളം എന്നുള്ളത് ഒരു ഭാഷ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു സാംസ്ക്കാരിക അവസ്ഥയാണ് നമ്മളുടെ കേരളത്തിൻ്റെ തനിമ എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ തനിമ തന്നെയാണ് മലയാളം നാട് കേരള നാട് നമ്മുടെ നാടിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ഭാഷയുടെ പേരിൽ രൂപത്തിലാണ് മലയാള നാട് എന്ന് പറയുമ്പോൾ അവിടെ ആ ഭാഷയ്ക്കാണ് ഏറ്റവും പ്രധാനം കൊടുത്ത് ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഥവാ കേരളത്തിൻ്റെ സ്വത്വത്തിൽ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ ഭാഷയായ മലയാളം ശരിക്കും മലയാളഭാഷയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഐഡൻ്റിറ്റീന്ന് പറയുന്നത് മലയാളത്തെ മലയാളത്തിലൂടെ അല്ലെങ്കിൽ മലയാള ഭാഷയിലൂടെ മലയാള ഭാഷയുടെ ആ തനിമയിലൂടെ വർളന്ന് വന്ന മലയാള ഭാഷയിൽ നിന്നുള്ള വളമുപയോഗിച്ച് വളർന്ന് വന്നതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക സ്വത്വം നമുക്കറിയാം കേരളമെന്ന് പറയുമ്പോൾ അതിന് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് കേരളം നമ്മുടെ നാട് കേരങ്ങൾ നിറഞ്ഞിരിക്കുന്ന നാട് അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ നാടെന്നുള്ള രീതിയിലാണ് ലോകം മുഴുവനും അറിയപ്പെടുന്നത് ഇങ്ങേയറ്റം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പേര് പോലും കേരളത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഭാഷ തന്നെയാണ് കേരള ഭാഷ അതായത് മലയാളം അത് ആ ഭാഷ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഘടനയിൽ വിനോദാഭാസികളിൽ വ്യവസായ വിനോദം വിനോദകരമായ ആ സാംസ്ക്കാരിക കാര്യങ്ങളിൽ വ്യവസായത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ നമ്മുടെ ആഹാര രീതിയിൽ എല്ലാം അതിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും മലയാളികൾ എന്നാണ് ഇവിടുത്തെ ജനങ്ങളെ പറയുന്നത് മലയാള ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ മലയാളികൾ എന്നാണ് പറയുന്നത് കേരളീയർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് പുറത്തും ഇത് മറ്റുള്ള ഇന്ത്യേയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെ അറിയപ്പെടുന്നത് മലയാളികൾ എന്നുള്ള രീതിയിലാണ് മലയാള ഭാഷ സംസാരിക്കുന്നവർ അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം കേരളത്തെ ഉയർത്തിക്കാട്ടി നിർത്തുന്നത് കേരളത്തെ കേരളമാക്കി നിർത്തുന്നത് കേരളത്തിൻ്റെ പേരും പെരുമയും മറ്റുള്ള സ്ഥലങ്ങളിലെക്കെത്തിക്കുന്ന എത്തിക്കുന്ന എത്തിക്കുന്നത് ഭാഷ തന്നെയാണ് മലയാളം തന്നെയാണ് അപ്പോഴേ നമ്മുടെ ഭാഷക്ക് നമ്മുടെ സംസ്കാരത്തിൻ ലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയിൽ വളർച്ചയിൽ അതിൻ്റെ രൂപീകരണത്തിൽ അതിൻ്റെ സ്വത്വം സ്വത്ത്വത്തിലൊക്കെ ഒത്തിരി വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിൽ വളരെയധികം ഉൽകൃഷ്ഠമായ സാഹിത്യ രചനകളും സാഹിത്യകൃതികളും ഒക്കെയുള്ളൊരു ഭാഷയാണ് മലയാളം ലോകപ്രശസ്തമായ ഒരുപാട് സാഹിത്യ കൃതികൾ മലയാളത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സാഹിത്യ മണ്ഡലത്തിൽ ഉള്ള നിറഞ്ഞ് നിൽക്കുന്ന അതെ അനേകം കൃതികൾ മലയാള ഭാഷയിലുണ്ട് ആ ഭാഷയുടെ പ്രത്യേകതകളിലൂടെയാണ് അല്ലെങ്കിൽ ആ ഭാഷയിലൂടെയാണ് അത് ലോകം മുഴുവനും അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ മലയാളത്തിൽ മലയാളഭാഷയിലുള്ള കൃതികളെ അതുപോലെ തന്നെ മലയാള ഭാഷയിലുള്ള മറ്റ് മറ്റ് ഭാഷകളിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് വന്നിരിക്കുന്ന കൃതികൾ ഇവയെല്ലാം നോക്കുവാണെങ്കിൽ മലയാളത്തിന് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും മലയാളികളെക്കുറിച്ചും അല്ലെങ്കിൽ മലയാളഭാഷ സംസാരിക്കുന്നവരെ കുറിച്ചുമൊക്കെ ഉള്ള അറിവ് നാട്ടുകാർക്കുണ്ട് അത് കൂടുതലും ഈ കേരളത്തിൻ്റെ പേരും പെരുമയും പുറത്തേക്കെത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മലയാളമാണ് നമ്മുടെ ഭാഷയാണ് അപ്പോൾ നമ്മുടെ മലയാള ഭാഷയാണ് നമ്മുടെ മലയാളം കേരളത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് മലയാളനാട് മലയാളികൾ ഇതെല്ലാം ഈ പേരുകളെല്ലാം വന്നിരിക്കുന്നത് ഭാഷയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്ക്കാരിക സാമ്പത്തിക മറ്റ് ധാർമീകമായ അത് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നമ്മളെ കേരളത്തെ രൂപപ്പെടുത്തിരിയിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മുടെ ഭാഷയാണ് നമ്മുടെ ഭാഷ അത് നമ്മുടെ മാതൃഭാഷയെന്ന് പറയുന്നത് നമ്മുടെ അമ്മയെ പോലെ തന്നെയാണ് മാതൃഭാഷയിലൂടെയാണ് നമ്മൾ നമ്മളെ തന്നെ പ്രകടിപ്പിക്കുന്നത് അല്ലെ നമ്മളെ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ എത്ര പ്രധാനപ്പെട്ട മലയാളഭാഷ നമ്മുടെ രാജ്യം സംസ്ഥാനത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ര കേരളത്തിന്റെയും രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ മലയാള ഭാഷ തന്നെയാണ്